സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞാൽ നല്ലൊരു പദ്ധതിയാണ് അതിലൂടെ നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ നല്ല വൃത്തിയുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ട് പണ്ട് പണ്ടാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും മാലിന്യങ്ങൾ കൊണ്ട് എറിയുകയും അതായത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെല്ലാം അന്ന് മാലിന്യ കൂമ്പാരങ്ങൾ ആക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ സ്വച്ഛ് ഭാരതിലൂടെ ശുചിത്വബോധം വളർത്തുകയാണ് ചെയ്യുന്നത് ഹരിത കർമ്മ സേന ഇതിൻറെ ഒരു ഭാഗമാണ് അവർ നമ്മുടെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക്കും മറ്റു വേസ്റ്റ് വസ്തുക്കളും ഒക്കെ എടുത്ത് മാസാമാസം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീടും പരിസരവും പ്ലാസ്റ്റിക് വിമുക്തമാകുന്നുണ്ട് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മൾ സ്കൂൾ പരിസരം ഒക്കെ വൃത്തിയാക്കുന്ന യജ്ഞം ത്തിലോക്കെ പങ്കെടുക്കാറുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ബസ് സ്റ്റാൻഡുകളും സ്കൂളും ആശുപത്രി കെട്ടിടങ്ങളൊക്കെ വൃത്തിയാക്കി വയ്ക്കാൻ ഇതുകൊണ്ട് സഹായിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം നമ്മളല്ലേ വൃത്തിയാക്കേണ്ടത് വേറെ ആരുടെയും ചുമതല അല്ല എന്നൊരു ബോധം നമ്മൾ നമ്മളും നമ്മുടെ വളർന്നുവരുന്ന കുട്ടികളിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ നമുക്ക് നല്ലൊരു ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് കൂടു കഴിവതും നമ്മുടെ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും വേറെയൊരു സ്ഥലത്തോ ചുറ്റുപാടും വലിച്ചെറിയാനായിട്ട് പാടില്ല നമ്മളുടെ മാലിന്യം നമ്മൾ തന്നെ അതിനെ നല്ല രീതിയിൽ അതിനെ വൃത്തി നമ്മുടെ സാഹചര്യം വൃത്തിയാക്കേണ്ടതുണ്ട് പ്ലാസ്റ്റിക്കും മറ്റു ഭൂമിക്ക് ദോഷമായ സാധനങ്ങൾ വലിച്ചെറിയാനോ പാടില്ല പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എത്രനാളും മണ്ണിൽ കിടന്നാലും നമ്മുടെ മണ്ണിനോട് അലിഞ്ഞുചേരുന്ന ഒരു വസ്തു അല്ല അതുകൊണ്ട്തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുകയും നമ്മുടെ അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടും വൃത്തിയുള്ളതാക്കി വയ്ക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുമാണ് ഇതിനുവേണ്ടി നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യം നടക്കുള്ളൂ അല്ലാതെ ഒരാൾ വൃത്തിയാക്കി വയ്ക്കുകയും മറ്റൊരാൾ മോശപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഭൂമി വൃത്തിയാവുന്നതല്ല